ആ എൻ്റെ പേര് മുബഷിറ ഞാൻ ഒരു ട്രിപ്പ് ആയിട്ട് വന്നത് ആണ് ഇപ്പോൾ ഞാനും എൻ്റെ ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഉണ്ട് എൻ്റെ കൂടെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരാഴ്ചത്തെ ഒരു ഒന്ന് അടിച്ച് പൊളിക്കാൻ ഒരു ട്രിപ്പ് പോവാന്ന് ഒക്കെ വിചാരിച്ച് വന്നത് ആണ് അപ്പം ഇത് ഞാൻ ഇപ്പോൾ കോഴിക്കോട് എത്തീട്ട് ഉണ്ട് കോഴിക്കോട് ഇവിടെ ഞാൻ ഒരു ആ വയനാട് അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ എവിടെ ഒക്കെയാ ഉള്ളേന്ന് ഇപ്പം നമുക്ക് അറിയില്ല ടൂറിസ്റ്റ് സ്ഥലങ്ങൾ എവിടെ ഒക്കെയാ ഉള്ളേന്ന് നല്ല നല്ല കാലാവസ്ഥ ആണെങ്കിൽ തന്നെ നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടീട്ട് വിളിച്ച ആയിരുന്നു

ഓക്കെ ആ ഇവിടുന്ന് ഇപ്പോൾ കോഴിക്കോടുന്ന് ഇപ്പോൾ വായനാട്ടേക്ക് ഒരുപാട് ദൂരം ഉണ്ടോ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ അപ്പോൾ വയനാട്ടിൽ വരുവാണെങ്കിൽ ഒരാഴ്ച്ച തന്നെ വേണം അല്ലേ ആ ഇപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് താമസം ഒക്കെ എങ്ങനെ ആണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മാഡം ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ മാഡം ആ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറ്റുമോ ഇവിടെ ഓക്കെ മാഡം താങ്ക് യൂ ഇന്ന് ഇപ്പോൾ കോഴിക്കോട് തന്നെ സ്റ്റേ ചെയ്യാം വിചാരിച്ചിട്ട് ആണ് അപ്പോൾ നാളെയേറ്റോം ഓക്കെ മാഡം താങ്ക്സ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ പി കെ ട്രാവൽസ് ആ ഓക്കെ മാഡം താങ്ക്സ് ഓക്കെ ഓക്കെ മാഡം